എനിക്ക് സന്ദർശിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ജപ്പാൻ്റെ തലസ്ഥാനമായ ടോക്കിയോ ആണ് കാരണം അവിടുത്തെ ആളുകൾ ഭയങ്കരമായിട്ട് പൊളൈറ്റ് ആണ് നമ്മളെ ഭയങ്കര ഒരു അവിടുത്തെ ടൂറിസ്റ്റുകളായിട്ട് വരുന്ന ആളുകളെ ഭയങ്കര കാര്യമാണ് അവർക്ക് അതുപോലെ തന്നെ അവിടുത്തെ കൾച്ചറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതല്ലാതെ എനിക്ക് വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളത് ദുബായ് ആണ് അവിടെ ടാക്സ് കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ളപോലെ ജീവിക്കാൻ അവിടെ ഒരു കുഴപ്പവും ഇല്ല